എടാ ഒരു വാടക ക്യാബ് ഓർഡർ ബുക്ക് ചെയ്യണമല്ലോ നമ്മൾ എന്നാണ് യാത്ര പോവുന്നത് ആണോ അന്നാണോ ഹൈ എന്നുവെച്ചാൽ രണ്ട് ആഴ്ച കഴിഞ്ഞ് രണ്ട് ആഴ്ച കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അഞ്ച് ദിവസമോ അപ്പോൾ അഞ്ച് ദിവസം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് യാത്ര ചെയ്യാനുള്ള വണ്ടി വേണ്ടേ ആ അങ്ങനെ വണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏത് സൈറ്റിലാണ് നോക്കുക ഏതാണ് എടുക്കുക എല്ലാവരെയും കൊള്ളുകയും വേണം അപ്പോൾ നമുക്ക് എന്ത് ടൈപ്പ് വണ്ടിയാണ് വേണ്ടത് ഏത് പോലത്തെ വണ്ടിയാണ് വേണ്ടത് ഒരു കാര്യം ചെയ്യാം ഒരു സെവൻ സീറ്റർ ഏഴ് സീറ്റ് ഉള്ള എസ് യു വി എടുക്കാം അതാവുമ്പോൾ എല്ലാവർക്കും ഇരിക്കാനും പറ്റും സുഖമായിട്ട് എന്നാൽ നമ്മുടെ ലഗ്ഗേജും സ്ഥാ കുറേ സാധനങ്ങളും ഉണ്ടല്ലോ എടുക്കാൻ അതൊക്കെ എടുത്തുവയ്ക്കാം ഓക്കെ നമ്മൾ സ്ഥലം ഇവിടുന്ന് ഗോവ ഗോവയിലേക്കിനി എത്ര ദൂരം ഉണ്ടാവും അയ്യോ കാർ ഓടിച്ച് ഗോവ വരെ അല്ലേ അഞ്ച് ദിവസം കാർ ഓടിച്ച് ഗോവ ഗോവയിൽ എത്താൻ തന്നെ രണ്ട് ദിവസം എടുക്കും അപ്പോൾ അത് വേണ്ട നമുക്ക് കൊടേക്കെനാൽ പോവാം കൊടേക്കെനാൽ ആകുമ്പോൾ നമുക്ക് ഗുണ കേവ്സ് കാണാം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോ കിലോമീറ്റർ ഒരു ഇരുനൂറ്റി എഴുപത് സംതിങ്ങ് കിലോമീറ്റർ ഉണ്ടാകും അങ്ങനെയാകുമ്പോൾ ഓരോ കിലോമീറ്ററിന് വെച്ചിട്ട് അമ്പത് രൂപയോ ആ ആ ആ അമ്പത് രൂപ ഗുഡ് ആണ് ഗുഡ് ആണ് എന്നാൽ അങ്ങനെ ഓർഡർ ചെയ്യാം ഓക്കെ അപ്പോൾ ശരി അപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചും ദിവസങ്ങളിൽ ആയിട്ട് കൊടൈക്കനാൽ ട്രിപ്പ് സെറ്റ് അപ്പോൾ നമ്മൾ ഒരു ക്യാബ് ബുക്ക് ചെയ്യുന്നു നമ്മൾ ഇവിടെ നിന്ന് ഇരുപത്തൊന്നാം തീയതി പോകുന്നു ഇരുപത്തഞ്ചാം തീയതി തിരിച്ച് വരുന്നു ജിൽ ജിൽ ജിൽ